മഴ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതല് വിനോദസഞ്ചാരികള് കുറയുന്നതാണ് മഴ സമയത്താണ് അപ്പോള് ആരും അങ്ങനെ യാത്ര ചെയ്യാനൊന്നും താൽപര്യപ്പെടാതെ സേഫായിട്ട് വീട്ടിലിരിക്കാനെ എല്ലാവരും താല്പര്യപ്പെടുകയുള്ളൂവല്ലോ അതാണ് എല്ലാവരും പ്രിഫെറെയ്യുന്നത് പക്ഷെ നമ്മളെ കുട്ടനാടിനെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും കൂടുതല് വിനോദസഞ്ചാരികള് കുറയുന്നത് മഴ സമയത്താണ് പ്രത്യേകിച്ച് നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ട് വരാനും ഒക്കെ ആൾക്കാർക്കൊരു പേടിയാണ് ഇപ്പോള് നമ്മള് പെട്ടുപോയാല് പെട്ടെന്ന് വെള്ളം പൊങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും യാത്രാ ബുദ്ധിമുട്ടും അങ്ങനെയുള്ളതൊക്കെ പിന്നീടുള്ള പിന്നെ ഇപ്പോഴവർക്ക് തിരിച്ചുപോക്കും അതൊക്കെ വളരെ തടസ്സം വരും പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കില് ഇവരൊക്കെ ഇവർക്കതൊക്കെ പേടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് പ്രോപ്പറായിട്ട് സ്ഥലം കാണാൻ പറ്റത്തില്ല മഴയാണെങ്കില് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അപ്പോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടൂറിസത്തെ ബാധിക്കാറുണ്ട് അപ്പോള് ഈ മഴ സമയത്താണ് നമുക്ക് തീരെ വിനോദസഞ്ചാരികള് ഇല്ലാതെ വരുന്നെ ഹൗസ് ബോട്ടിലൊക്കെ കയറാനാണെലും എല്ലാ എല്ലാ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് എടുത്തു നോക്കിയാലും ആരും കാണത്തില്ല